ഹലോ ഞാൻ മങ്ങാട്ടുകരയില് താമസിച്ചിരുന്ന ജയകുമാരിയാണ് ഞാൻ നിങ്ങളുടെ ആര്യ ഭവനല്ലേ നിങ്ങളുടെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം ഓർഡറ് ചെയ്യാറുണ്ട് മങ്ങാട്ടുകരയിലേക്ക് പക്ഷെ ഇപ്പോൾ ഞാനവിടെ അല്ല അത്താണിക്കൽ ഏർപോർട്ട് വഴി ആണ് നിൽക്കുന്നത് അവിടെ ഒര് വീട്ടില് സ് കസിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞാൻ ഓർഡറ് ചെയ്യുന്ന ഭക്ഷണം നിങ്ങൾക്കവിടെ എത്തിക്കാൻ പറ്റുവോ ഞാൻ സിഗ്നലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് ഈ വീട് ഒര് രണ്ട് നില വീട് അവിടെക്ക് നിങ്ങൾക്ക് ഇത് ഓർഡറ് ചെയ്താൽ എത്തിക്കാൻ സാധിക്കുമോ ഞാൻ അഡ്രസ്സ് തരാം അത്താണിക്കെ ഏർപോർട്ട് വഴി കഴിക്കുന്ന എനിക്ക് ഓർഡറ് ചെയ്യാനുള്ള ഭക്ഷണം ചോറ് അതിൻ സാമ്പാറ് അവിയില് അങ്ങനെ അതിലുൾ അടങ്ങുന്ന വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ് എനിക്കെത്തിക്കേണ്ടത് കൂട്ടത്തിൽ പായസവും കൂടി എത്തിക്കുക